മിനി ചേച്ചി ആണോ ആ ചേച്ചി ഞാൻ എനിക്ക് ഒരു ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് എത്ര ദിവസം എടുക്കും ഒര് ഫ്രോക്ക് ആണ് എനിക്ക് തിങ്കളാഴ്ചയാണ് ബർത്ത്ഡേ പക്ഷേ എനിക്ക് ഞായറാഴ്ച കിട്ടണം അപ്പോൾ ഫ്രോക്ക് പോലെ തയ്പ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി തയ്ക്കുന്നു ഇങ്ങനെ പറയുന്ന ത് കേട്ടപ്പം എനിക്ക് ഡിസൈൻ ഇവിടെ റൗണ്ട് വന്നിട്ട് പഫ് കയ്യും അങ്ങനെയൊക്കെ ഉള്ള എന്നിട്ടെന്തെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആ അതിൽ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ചെറിയ വർക്ക് കൊടുത്താലും നല്ലതായിരിക്കുമല്ലോ അളവ് ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ട് വരണോ അതോ ചേച്ചി തന്നെ ആണല്ലേ ചേച്ചി എനിക്ക് തിങ്കളാഴ്ച വേണം അല്ല തിങ്കൾ തിങ്കളാഴ്ചയാണ് എനിക്ക് പാർട്ടി അപ്പോൾ ഞായറാഴ്ച കിട്ടണം അല്ല ഇത് ഷുവറായിട്ട് പറയാൻ പറ്റത്തില്ലേ ചേച്ചി തുണി ഷിഫോണിൻ്റെ തുണിയാണ് അപ്പം പാട് വരുമോ പാടായിരിക്കും അല്ലേ അപ്പം റേറ്റും കൂടുതലായിരിക്കും അല്ലേ എനിക്ക് സൺഡേ കിട്ടുമല്ലോ അതെനിക്ക് അത് അറിഞ്ഞാൽ മതി റേറ്റ് പ്രശ്നം ഇല്ല സൺഡേ കിട്ടുമെന്നുള്ള രീതിയാണെങ്കിൽ നമുക്ക് അത് കൊണ്ട് വരാമായിരുന്നു അപ്പൊ ചേച്ചി ഞാൻ വേറെ വേറെ ഡിസൈൻ വല്ല എന്തെങ്കിലും ഉണ്ടോ കഴുത്ത് ഏതൊക്കെയാണെന്ന് പറയുക ചേച്ചി വേറെ വേറെ ഏതൊക്കെ ഡിസൈൻ ഉണ്ടെന്ന് ഒന്ന് പറയാമോ റൗണ്ട് അല്ലാതെ

സ്റ്റോൺ വർക്കൊക്കെ ഉണ്ടല്ലോ കല്ല് വച്ചുള്ളതൊക്കെ ചെയ്യും അല്ലേ അതിനൊക്കെ എക്സ്ട്രാ പൈസ പൈസ ആവും അല്ലേ ആ നല്ലത് പോലെ ചെയ്തു തരുവമല്ലോ അല്ലേ ചേച്ചി എനിക്ക് തിങ്കളാഴ്ച പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഞായറാഴ്ച ഞങ്ങൾ തന്നെ പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് നേരിട്ട് വന്നാൽ മതി അല്ലേ നേരിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി തരുമല്ലോ അല്ലേ ആ വീട്ടിൽ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ചോദിക്കാൻ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞതാണ് വിളിച്ചിട്ട് വരാം ചേച്ചി ആ ഓക്കെ ചേച്ചി ഞാൻ എന്നാൽ കൊണ്ട് വരാം ഞാൻ അപ്പോൾ നമുക്ക് നോക്കാലോ ആ ഇതാണ് ഞായറാഴ്ച തരണേ ചേച്ചി ആ അത് പൈസ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞായറാഴ്ച കിട്ടുന്ന രീതി ആ ഞായറാഴ്ച കിട്ടുന്ന രീതി തിരിച്ച് ആണല്ലേ ആ അത് കുഴപ്പമില്ല ഞായറാഴ്ച കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടു വരാം ഇന്ന് വൈകീട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടു വരാം ചേ ച്ചി ആ ഓക്കെ താങ്ക് യു താങ്ക് യു